എന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഉപയോഗിക്കുന്ന ഫോണുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്നും ഈ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തിരുന്നത് അവർ വളരെയേറെ നല്ലരീതിയിൽ പാക്ക് ചെയ്ത് എനിക്ക് ഇത് ഡെലിവെറി ചെയ്തിട്ടുണ്ട് നല്ല ഫോണാണ് ഫോണിന് നല്ല ക്ലിയർ ഉണ്ട് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയില് ഉള്ള ഫോൺ ആണ് അതിനു അധികം റേറ്റ് ഒന്നും വരുന്നില്ല നല്ല മെമ്മറി പവറും ക്യാമറയും ഉണ്ട് നമ്മൾ മൊബൈലിൽ വീഡിയോസും ഗെയിമുകളും ഒക്കെ കളിച്ചാലും പെട്ടന്നൊന്നും ചാർജ്ജ് തീരുന്നില്ല വളരെയേറെ നല്ലൊരു ഫോൺ ആണ് ഇവർ നമുക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് വളരെയേറെ നല്ലൊരു ഫോൺ ആണ്